അ അതെയായിരുന്നു അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ ഓക്കേ കൊച്ചിൻ്റെ പേരെന്താരുന്നു ആര്യ എന്നാണല്ലേ ഓക്കേ വീട് എവിടെയായിരുന്നു പുൽപ്പള്ളി തന്നെയാണല്ലേ ഓക്കേ അച്ഛൻ്റെ പേരെന്താണ് ബിജു അ ഓക്കേ അ ഓക്കേ ഓക്കേ അമ്മേൻ്റെ പേര് ശാന്ത ഓക്കേ നിങ്ങൾ അച്ഛൻ എന്താണ് ചെയ്യുന്നത് കൂലിപ്പണിയാണ് വരുന്നത് അല്ലേ ഓക്കേ ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ നോക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് നോക്കുന്നത് അല്ലെ ഒപ്പം എന്താ ബ്രെദേഴ്സോ കാര്യങ്ങളും ആരേലും വരുന്നുണ്ടോ ഇവിടെ പഠിക്കുന്ന അങ്ങനെന്തേലും ഉണ്ടോ ആരും വരുന്നില്ല അല്ലേ ഓക്കേ നമുക്കിവിടെ ഫീസ് രജിസ്റ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് ഡൊണേഷൻ വരുന്നുണ്ട് നമുക്ക് അത് വരുന്നത് ഡൊണേഷനായിട്ട് നമുക്ക് ഫസ്റ്റ് അഡ്മിഷനായിട്ട് വേണ്ടത് ഒരൂ അൻപതിനായിരം രൂപ ഡൊണേഷൻ വരുന്നുണ്ട് അതെ പിന്നെ നമുക്ക് ഫീസ് കാര്യങ്ങള് വരുന്നത് മാസം പതിനായിരം രൂപ വെച്ചിട്ടാണ് നമുക്ക് ഫീസ് കാര്യങ്ങളൊക്കെ വരുന്നത് അതെ പതിനായിരം രൂപ വെച്ചിട്ടാണ് വരുന്നത് പിന്നെ ബുക്ക് കാര്യങ്ങൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ് എല്ലാം ഇതിനുള്ളിൽ തന്നെ പ്രൊവൈഡ് ചെയ്ത് വരുന്നതാണ് പിന്നെ അഡ്മിഷൻ പ്രൊസീജിയർ കാര്യങ്ങള് വരുന്നത് നിങ്ങളുടെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ തയാറാക്കി സബ്മിറ്റ് ചെയ്യണം അതായത് വീട്ടുകാരുടെ ആധാർ കാർഡ് കാര്യങ്ങള് പിന്നെ ഫുൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം അത് എന്തൊക്കെയാണെന്ന് ഉള്ളത് ഞാൻ വാട്സ്ആപ്പ് ചെയ്ത് തരാം നമ്പറില് അതെ പിന്നെ പേരൻറ്റിൻ്റെ ഫോട്ടോ കാര്യങ്ങള് വേണം അത്രയും കാര്യങ്ങൾ ആണ് നിലവില് വേണ്ടത് പിന്നേ യൂണിഫോമിൻ്റെ കേസ് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോമിൻ്റെ മെറ്റീരിയൽസ് മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യും ബാക്കി എല്ലാം നിങ്ങള് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളുമൊക്കെ നിങ്ങളാണ് വരുന്നത്

അതിന് നമുക്ക് മന്തിലി അയ്യായ്യിരം രൂപ വരുന്നുണ്ട് അത് കറക്ട് പുൽപ്പള്ളിയിൽ തന്നെ അല്ലേ വരുന്നത് അ അപ്പോൾ അയ്യായിരം രൂപയാണ് വരുന്നത് കേട്ടോ അതെ ചെറിയൊരു കിലോമീറ്റർ ബേസിലാണ് ഡിഫറെൻസ് വരുന്നത് ചെറിയൊരു ഡിഫറെൻസ് വരുന്നത് ചെറിയ ഡിഫറൻസേ വരുത്തുള്ളൂ അ അതാകുമ്പം നമുക്ക് രാവിലെ പിക്അപ്പും ഉണ്ടാകും ഡ്രോപ്പും കാര്യങ്ങളുമൊക്കെ കറക്റ്റ് ടൈമിന് ഉണ്ടാകും വേറെ എന്തേലും ഡീറ്റെയിൽസ് എന്തേലും അറിയാനുണ്ടോ ക്ലാസ്സൊക്കെ നമുക്ക് നോർമലി തുടങ്ങുന്ന ടൈമിങ്ങിൽ തന്നെയാണ് തുടങ്ങുന്നത് ജനുവരിയിൽ തന്നെയാണ് എല്ലാവർക്കും എല്ലാവർക്കും തുടങ്ങുന്നത് അപ്പം തന്നെയാണ് തുടങ്ങുന്നത് അതിനൊന്നും മാറ്റമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അതെ പിന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് അങ്ങ് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ വരുന്ന സമയത്ത് ബാക്കി ഡീറ്റെയിൽസ് നമ്മള് പറഞ്ഞു തരാം ഡോക്യുമെൻ്റെസ് കാര്യങ്ങള് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് വാട്സ്ആപ്പ് ചെയ്തു തരാം അതെ മാംമിന് എപ്പോൽ വേണമെങ്കിലും വരാം ഏതു ടൈമിലാണെങ്കിലും കുഴപ്പമില്ല ഓക്കേ ഓക്കേ താങ്ക് യൂ